നീന്തുന്നത് വഴി നമ്മുടെ ബോഡിയിലെ വെയ്റ്റ് ബേൺ ചെയ്യാനും നമുക്ക് ഫ്രീ ആവാനും പറ്റും നീന്തുന്നത് നീന്തുന്നത് ഒരു വളരെ നല്ല വ്യായാമമാണ് നീന്തൽ ഉപയോഗിച്ച് വളരെ അധികം ശരീര ഭാരം കുറയ്ക്കുന്ന ഒരു ഒരുപാട് അധികം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് നീന്തുന്നതു കൊണ്ട് നമുക്ക് ബോഡിയിൽ എല്ലാം ഭാഗവും സ്റ്റിമുലേറ്റ് ചെയ്യാനും ബോഡി ഹീറ്റ് കൂട്ടാനും പറ്റും അതേപോലെ തന്നെ നീന്തലിലൂടെ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കണ്ട്രോൾ ചെയ്യാനും അതെപോലെ നമ്മുടെ ബ്രീത്തിങ് കണ്ട്രോൾ ചെയ്യാനും നീന്തൽ ഒരുപാട് അധികം സഹായിക്കുന്നു നീന്തൽ മുങ്ങി നീന്തുന്ന ആൾക്കാരിൽ ബ്രീത്ത് കുറേ അധികം നേരം പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം അതേപോലെ തന്നെ അവർ ബ്രീത്തിങ് ബ്രീത്തിങ് ഹാബിറ്റസും ബ്രീത്തിങ് രീതികളും അവർക്ക് ഒരുപാട് അധികം ഡെവലപ്പ് ചെയ്യാൻ നീന്തൽ സഹായിക്കുന്നതാണ്